നമസ്കാരം ഞാൻ അശോക് ഇത് റെഡിമേട് വസ്ത്രങ്ങളുടെ കാലമാണ് എല്ലാത്തരം വസ്ത്രങ്ങളും നമുക്ക് റെഡിമേഡായി കിട്ടുന്നുമുണ്ട് എന്നാൽ ഇപ്പഴും കൈ കൊണ്ട് നിർമിച്ച വസ്ത്രങ്ങൾക്ക് താല്പര്യം താല്പര്യമുള്ളവർ ഉണ്ടെന്ന് നമുക്കറിയാം

എന്തുകൊണ്ടും റെഡിമേഡ് വസ്ത്രങ്ങളെക്കാൾ നിലവാരമുള്ള ഒന്നു തന്നെയാണ് കയ്യോണ്ട് നിർമിച്ച വസ്ത്രങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഇത്തരം കയ്യോണ്ട് നിർമിച്ച വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നതു മൂലം ഇത്തരം കലകൾ അന്യം നിന്ന് പോവാതിരിക്കാൻ ഇത് സഹായിക്കും